ശബ്ദം പലപ്പോഴും ഇടറി പോവുകയും തൊണ്ട ഇടറുകയും ശബ്ദം നന്നായി കിട്ടാതെ വരികയും കഫക്കെട്ട് മൂലം പല ബുദ്ധിമുട്ടുകളും ഇന്ന് പ്രായം കൂടുന്നതിൻ്റെ കൂടെയായിരിക്കാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മിക്ക സമയങ്ങളിലും ശബ്ദം ശരിയാകാതെ പോകുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെ ശരീ ശബ്ദം ശബ്ദത്തിൻ്റെ ഇടർച്ച കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല സാഹചര്യങ്ങളിലും പലതും ചെയ്തു നോക്കുന്നുണ്ടെങ്കിലും തൊണ്ടയ്ക്ക് നല്ല കരകരപ്പുള്ളതിനാൽ തൊണ്ടയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു ശബ്ദം ശരിയായി വരുന്നില്ല അതിന് പലപ്പോഴും ചെയ്യാറുള്ള പൊടിക്കൈകളെന്ന് പറയുന്നത് ചുക്ക് കാപ്പി ഇട്ട് കുടിക്കുക അങ്ങനെ തൊണ്ടയിൽ പലവിധ ലേപനങ്ങൾ പുരട്ടുക തൊണ്ടയ്ക്ക് വരു ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കാറുണ്ട് ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാറുണ്ട് ഗാർഗിൾ ചെയ്യാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉപ്പും വെള്ളവും വെള്ളം തിളപ്പിച്ച് അതിലേ ഉപ്പും ഇട്ട് താങ്ങാവുന്നത്ര ചൂടിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ഗാർഗിൾ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ മാറ്റം സംഭവിക്കാറുണ്ട് എങ്കിലും ഒന്നും പൂർണ്ണമായും മാറുന്നില്ല പിന്നെ പലപ്പോഴും തൊണ്ടയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം സംരക്ഷിക്ക് തൊണ്ടയെ സംരക്ഷി ശബ്ദം കേടാകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ശബ്ദം പലപ്പോഴും പറഞ് ഇതായി പോകുന്നു ശബ്ദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശബ്ദം നമ്മുടെ പല ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാക്കാറുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ശബ്ദം കൂടുതലായി അസ്വസ്ഥപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഗാർഗിൾ ചെയ്യുവാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ആവി പിടിക്കാറുണ്ട് ആവി പിടിക്കുമ്പോൾ കുറച്ചൊക്കെ മാറ്റം സംഭവിക്കുന്നു ഗാർഗിൾ ചെയ്യുന്നു ചുക്ക് കാപ്പിയിട്ട് കുടിക്കുന്നു കുരുമുളകും കുരുമുളകും ജീരകവും കാപ്പിപ്പൊടിയും തുളസി പനിക്കൂർക്ക ഇവയെല്ലാം കൂടെ ചേർത്ത് വെള്ളം തിളപ്പിച്ച് അങ്ങനെ നല്ല ചൂടോടെ കുടിക്കാറുണ്ട് ആവി പിടിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കാര്യം നമുക്ക് തൊണ്ടയുടെ സംരക്ഷണം നിർത്തികൊണ്ടിരിക്കുന്നു എങ്കിലും പൂർണ്ണമായും മാറുന്നില്ല എന്നുള്ളതാണ് പിൻ കൂടുതലായിട്ട് ജലദോഷം തൊണ്ട കാരൽ അത് കൂടുതലായി ഉണ്ടാകുന്നു സംസാരിക്കുമ്പോൾ സ്വരം പതറിപ്പോകുന്നു തൊണ്ടയിൽ കരകരപ്പ് ഉണ്ടാകുന്നു ഇതെല്ലാം സർവ്വസാധാരണമായിക്കൊണ്ടേ ഇരിക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടും ഇങ്ങനെ തന്നെ ഇപ്പോഴും കുറേയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നാലും തുടർച്ചയായി ഇതൊക്കെത്തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു തൊണ്ടയുടെ സംരക്ഷണത്തിന് വേണ്ടി പല മാർഗങ്ങളും പൊടിക്കൈകളായി ഉപയോഗിക്കാറുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടയിൽ ഉപ്പ് വെള്ളം കൊള്ളുക കൊള്ളുക പിന്നെ കാപ്പിയിട്ട് ചുക്ക് കാപ്പി നല്ല കുരുമുളകും എല്ലാം ചേർത്ത് ഇട്ട് കു തുളസിയിലയും പനികൂർക്ക ഇലയും കാപ്പിപ്പൊടിയും എല്ലാം ചേർത്ത് ഒരു നല്ല കാപ്പിയിട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ ചെറുചൂട് ചെല്ലുമ്പോൾ അതിൻ്റെ ചൂട് നല്ല ചൂടും ചൂടിന് തന്നെ കുടിക്കുക അത് തൊണ്ടയ്ക്ക് നല്ലോണ്ണം ചൂട് കിട്ടത്തക്ക രീതിയിൽ പിടിച്ച് കുടിക്കുമ്പോൾ അത് നമുക്ക് ആശ്വാസം തരുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് ജലദോ ജലദോഷവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കൂടുതലായി വരുന്നുണ്ട് അപ്പം നമ്മൾ അതിന് കൂടുതൽ കൂടുതൽ ചെയ്യാറുണ്ട് ഇതെല്ലാം നമുക്ക് ഒന്നും വില കൊടുത്ത് വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നു നമ്മൾ അങ്ങനെയെല്ലാം ചെയ്ത് നമ്മുടെ തൊണ്ട തൊണ്ടയേയും നമ്മുടെ ശബ്ദത്തേയും പരിപാലിക്കുവേം സംരക്ഷിക്കുവേം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ തൊണ്ട എപ്പോഴും ക്ഷീണം ക്ഷീണം കലർന്ന സ്വരവും ഇടർച്ച ഉള്ള സ്വരങ്ങളും ആയി തീരുമ്പോൾ അതെല്ലാം കഴിവതും ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ നമുക്ക് ചെയ്യാവുന്ന പൊടിക്കൈകൾ ഒക്കെ നമ്മൾ ചെയ്ത് അതെല്ലാം നേരെ ആക്കികൊണ്ടിരിക്കുകയാണ് പതുക്കെ ഇങ്ങനെ നമ്മളെല്ലാം ചെയ്യുന്നു ഞങ്ങളുടെ ഈ ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പൊടിക്കൈകളെല്ലാം ചെയ്യാറുള്ളത് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ശബ്ദത്തിൻ്റെ ക്ഷീണവും അല്ലെങ്കിൽ ഇടർച്ചയുമെല്ലാം അങ്ങനെ ഞങ്ങൾ കുറച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ശബ്ദം സംരക്ഷിക്കാനായി ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്